വിദ്യാഭ്യാസ ലോണിനെ കുറിച്ച് അറിയാവോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഒക്കെ അറിയാം കാരണം എനിക്ക് ഇങ്ങനെ വിദ്യാഭ്യാസ ലോൺ ഇത് വരെ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല അത്കൊണ്ട് വിദ്യാഭ്യാസ ലോൺനെ കുറിച്ച് മറ്റുള്ളവർ എടുത്തിരിക്കുന്നതും അങ്ങനെ അവർ പറഞ്ഞ് കേട്ടിട്ടുള്ളതും ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഇപ്പം ഏകദേശം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസ ലോണിന്ന് ലഭ്യമാണ് ഒരു പരിധി വരെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ കുറവ് മൂലം പഠനം അവസാനിപ്പിക്കേണ്ടി വരുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ നമുക്ക് ഇടയിലുണ്ട് അത് പോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും വിദ്യാഭ്യാസ ലോണ് ഒരു സഹായകരമാണ് കാരണം തൻ്റെ കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം മാതാപിതാക്കളുണ്ട് പണ്ടത്തേത് പോലെ അല്ല എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികൾ പഠിച്ച് മിടുക്കരാകണം അല്ലെങ്കിൽ ഒരു നല്ല ജോലി പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് കൂടുതലും പക്ഷേ അവരുടെ സാമ്പത്തിക ഭദ്രത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ ഉള്ളത് കൊണ്ടോ അവർക്ക് ഒരു പക്ഷേ തൻ്റെ കുട്ടികളെ ഒരു ഉന്നത പഠനത്തിന് അല്ലെ ഉപരിപഠനത്തിന് വിടാൻ അയക്കുവാനായിട്ട് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇത്പോലെയുള്ള വിദ്യാഭ്യാസ ലോണ്കൾ വളരെ അധികം ഫലപ്രദമാണ് അല്ലെങ്കിൽ സഹായകരമാണ് വിദ്യാഭ്യാസ ലോണ് ഇന്ന് ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് നിലവിലെ വിദ്യാഭ്യാസ ലോണ്കൾക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഇവയിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിയവർക്കാണ് വിദ്യാഭ്യാസ ലോണ്കൾ ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉന്നത ഉപരിപഠനത്തിന് പോകുന്ന ഡിപ്ലോമ കോഴ്സ്കൾക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇന്ന് ലോണ് വളരെ ലഭ്യമാണ് ബാങ്ക് നൽകുന്നുണ്ട് അത്പോലെ തന്നെ ഈ വിദ്യാഭ്യാസ ലോണ് എടുക്കുന്നത് ഈ വിദ്യാർത്ഥികൾ തന്നെയല്ല അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും അത്പോലെ തന്നെ വിദ്യാർത്ഥികും ഒരു പോലെ ഉത്തവാദിത്വം ഉണ്ട് ഈ ലോണ് തിരിച്ചടക്കുക എന്നതിൽ അത്കൊണ്ട് തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ കുട്ടിക്ക് അതായത് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്ന കുട്ടിക്ക് ഇത് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി എങ്കിൽ ആ വിദ്യാഭ്യാസ ലോണ് തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്വം ആ കുട്ടീടെ മാതാപിതാക്കൾക്കും കൂടി ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇനി ഇന്ത്യക്ക് അകത്താണ് പഠനം നടത്തുന്നത് എങ്കിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ബാങ്ക്കൾ വായ്പ നൽകുക അത്പോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്ത് നടത്തും നടത്തുവാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ബാങ്ക്കൾ വായ്പ അനുവദിക്കുക ഇനി വിദ്യാഭ്യാസ ലോണ് എടുക്കുമ്പോൾ അതിന് വേണ്ട മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് ചോദിച്ചെന്നാൽ നാല് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് നമ്മൾ ജാമ്യക്കാരൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഈട് നൽകേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ലോണെട്ക്ക്കയാണ് എങ്കിൽ ഒരു ജാമ്യക്കാരൻ്റെ ആവശ്യം ഉണ്ട് ഇനി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ എടുത്ത അത്ര തുക നമ്മൾ എടുത്തോ ആ തുക നമ്മൾ നമ്മുടെ പഠന ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് ആയിട്ട് വരുന്നുള്ളൂ ഇപ്പം ഏകദേശം നാല് വർഷം നീണ്ട് നിൽക്കുന്ന പഠന കാലയളവാണ് എങ്കിൽ ഈ നാല് വർഷത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ തുക അടച്ച് തുടങ്ങേണ്ടത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത്പോലെ തന്നെ നമ്മൾ ജോലി പ്രവേശിച്ച് ആറ് മാസത്തിന് ശേഷം മാത്രമാണ് ഈ വായ്പ എടുത്ത തുക നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പിന്നെ ഇത് ഒത്തിരി അധികം പേർക്ക് സഹായകരമാണ് എങ്കിൽ തന്നെയും സാധാരണ ഈ വിദ്യാഭ്യാസ ലോണെടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തികമായ വളരെ അധികം പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു ഒരാൾ ആയിരിക്കും അപ്പോൾ തന്നെ ഈ കുട്ടി പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് പെട്ടന്ന് ഒരു ജോലി പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഈ കുട്ടിക്ക് തിരിച്ചടയ്ക്കേണ്ട അതായത് വായ്പ എടുത്തിരിക്കുന്ന ബാങ്കിൽ നിന്ന് ലോണെടുത്തിരിക്കുന്ന തുകയ്ക്ക് തിരിച്ചടയ്ക്കേണ്ട സമയ പരിധി ബാങ്ക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ സമയത്തിന് ഉള്ളിൽ ആ പൈസ പൂർത്തിയായി അല്ലെങ്കിൽ അടച്ച് തീർക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പലിശ വീണ്ടും ആ കൂടും അപ്പം ഈ പലിശയും എടുത്ത തുകയും കൂടി കഴിയുമ്പം അത് വളരെ ഒരു വലിയ തുകയാകയും അതൊരു ബാധ്യതയിലേക്ക് മാതാപിതാക്കൾക്ക് അത് പോലെ കുട്ടികൾക്കും ഒരു ബാധ്യതയിലേക്ക് വരികയും ചെയ്യുന്നതും കാണാറുണ്ട് അപ്പോൾ നമ്മൾ സഹായകരമാണോ ഈ ബാങ്ക്ന്നെട്ക്ക്ന്ന് വായ്പകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോണ്കൾ സഹായകരമാണോ എന്ന് ചോദിച്ചെന്നാൽ ഒരു പരിധി വരെ സഹായകരമാണ് പക്ഷേ ഇത്പോലെ ഉള്ള ചില സാഹചര്യങ്ങൾ അതായത് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം കുട്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ ആ നല്ലൊരു വരുമാനത്തിലുള്ള വരുമാനം ലഭ്യമാകുന്ന ജോലി അല്ല കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ ഈ ലോണ് വീണ്ടും ഒരു തീരാ കടത്തിലേക്ക് ഈ കുടുംബത്തെ കൊണ്ടെത്തിക്കും എന്നതിൽ നമുക്ക് ഒരു സംശയവുമില്ല അങ്ങനെ വളരെ അധികം പേർ എനിക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ചുറ്റിലും കാണാവുന്നതും ആണ് വിദ്യാഭ്യാസ ലോണെട്ത്തിട്ടത് പൂർത്തിയാക്കാൻ അടച്ച് പൂർത്തിയാക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന വളരെ അധികം മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഇന്ന് നമുക്ക് ചുറ്റും ഉണ്ട് അത്കൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ ലോണ് കൊണ്ട് ഗുണവും ഉണ്ട് അത്പോലെ തന്നെ ദോഷവും ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കുവാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയും വന്ന് ചേർന്നിട്ടുണ്ട്